നല്ല രീതിയിൽ വിസിറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു പ്ലെയിസ് ആണ് കാസർഗോഡ് കാസർഗോഡിനെ പറ്റി പറയുകയാണെങ്കില് കാസർഗോഡ് അറിയുന്നത് തന്നെ പല രീതിലുള്ള ലാങേജസ് കാസർഗൊഡില് ഉണ്ട് പല രീതില് ആൾക്കാര് കാസർഗോഡ് ഭാഷകള് മിണ്ടുന്നുണ്ട് കാസർഗൊഡില് തന്നെ രണ്ട് രീതിയില് മലയാളങ്ങളുണ്ട് അതേപോലെ പല രീതിലുള്ള ലാങേജസ് ഉണ്ട് വേറെ രീതിയിൽ മലയാളമല്ലാതെ കന്നഡ തുളു മറാട്ടി എന്നി കുറെ ലാങേജസ് കാസർഗോഡ് ഉണ്ട് കാസർഗൊഡില് വിസിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക നേരങ്ങളൊന്നും ഇല്ല മഴക്കാലം അതുപോലെ വേനൽ കാലത്തും വേനൽ കാലത്ത് എന്ന് വെച്ചാൽ ചില സ്ഥല് ചില സ്ഥലങ്ങള് മാത്രമെ വള്ളം കുറഞ്ഞിട്ടുണ്ടാകും എന്നാലും വിസിറ്റ് ചെയ്യാൻ പറ്റും കാണാനായിട്ട് ഒന്നും ഉണ്ടാവില്ല മഴക്കാലം എന്നു പറയുമ്പഴേക്കും ചില സ്ഥലങ്ങളില് നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടാകും എന്നുവച്ചിട്ട് വിസിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒന്നും ഇല്ല ചില സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കാസർഗൊഡില് പല രീതിയിലായിട്ട് അമ്പലങ്ങൾ ഉണ്ട് അമ്പലമെന്ന് പറയുമ്പഴേക്കും മധുര് പിന്നെ അനന്തപുരം കുറെ അമ്പലങ്ങൾ ഉണ്ട് അതില് പറയുകയാണെങ്കിൽ മധുര് അമ്പലം എന്ന് പറയുമ്പോളേക്കും ഗണപതിയുടെ അമ്പലം ആണ് മധുര് അമ്പലത്തെ പറ്റിയിട്ട് ആൾക്കാര് വിശ്വസിക്കുന്ന കുറെ കഥകളുണ്ട് ഇങ്ങനെ അമ്പലം സ്ഥിതി ചെയ്യപ്പെട്ടത് എന്നിവയൊക്കെയുണ്ട് രണ്ടാമതായിട്ട് അനന്തപുരം അനന്തപുരംഅമ്പലം വരുന്നത് എങ്ങനെ ഉണ്ടാകുന്നത് എന്നു വെച്ചാൽ ചുറ്റുവട്ടത്ത് വെള്ളം അതേപോലെ ആയിട്ട് അമ്പലം ഈ അമ്പലം അറിയപ്പെടുന്നത് ഒരു മുതലയിൽ നിന്നാണ് അവിടെ പണ്ട് നിന്ന് തന്നെ ഒരു മുതല ആ ഒരു അമ്പലം ചുറ്റുവട്ടത്ത് തന്നെ ജീവിക്കുന്നുണ്ട് എന്നാണ് ആൾക്കാര് പറഞ്ഞു കൊണ്ട് വരുന്നത് അവിടുത്തെ കഥ ആ ഒരു രീതിലാണ് ഉള്ളത് പിന്നെ അതല്ലാതെ അമ്പലങ്ങള് കുറെ ഉണ്ട് കാസർഗോഡ് പറയാനായിട്ട്

കുമ്പള അതേപോലെ മധൂര് കാസർഗോഡ് ഭാഗത്ത് ഈ മധൂറും പിന്നെ അനന്തപുരം അമ്പലങ്ങളൊക്കെ കാസർഗോഡ് ബോർഡർ സൈഡിലാണ് ഉള്ളത് അമ്പലങ്ങളല്ലാതെ കാസർഗൊഡില് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങള് കുന്നുകള് ഉണ്ട് കുന്നുകൾ എന്ന് പറയുമ്പത്തേക്കും റാണിപുരം പിന്നെ പോസടി ഗുംപെ പോസടി ഗുംപെ എന്ന് പറയുമ്പത്തേക്കും ഇതേപോലെ ഈ ബോർഡർ സൈഡ് ആയിട്ട് പോസടി ഗുംപെ വരും കാസർഗോഡ് നിന്ന് ഒരു വൺ ഹവറ് ജേണി കാസർഗോഡ് അതായത് കാസർഗോഡ് ജംഗ്ഷൻ നിന്ന് ഈ പറയുന്ന പോസടി ഗുംപെ പോകുന്നുണ്ടെങ്കില് വൺ ഹവറ് ജേണി ഉണ്ട് ഈ സ്ഥലത്തേക്ക് ആൾക്കാര് വിസിറ്റ് ചെയുന്ന നേരം എന്നു വെച്ചാൽ രാ മോർണിംഗ് ആണ് രാവിലെ രാവിലെ നേരങ്ങളിലാണ് ആൾക്കാര് വിസിറ്റ് ചെയ്യുന്നത് ഈ സ്ഥലത്തെപ്പറ്റി പറയുവാണെങ്കിൽ ആൾക്കാര് രാവിലത്തെ സൂര്യോദയം കാണാനാണ് ആൾക്കാര് പോകുന്നത് അവിടെ പോയിട്ട് ഇരുന്നാല് അവിടത്തെ ആ ഒരു നേരം പോകുന്നത് അറിയാൻ പറ്റില്ല ടൈമു സ്പെൻഡ് ചെയ്യുന്നതും ഈ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സിറ്റീസില് ഉള്ളതുപോലെ അവിടെ പോയാല് ഞങ്ങൾക്കു വേണ്ട ശാന്തത കിട്ടും അവിടെ പോയി നിന്നാല് യാതൊരു എന്തെന്ന് പറയും ഇപ്പോൾ യാതൊരു രീതിയിലും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നമുക്ക് പോയാല് മൈൻഡ് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും അവിടെ പോയി ഇരുന്നാല് സമയം പോവുന്നത് അറിയാൻ പറ്റില്ല അധി അധി അധികം പേര് പോകുന്നത് തന്നെ സമയം ചെലവഴിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അതായത് ഞങ്ങൾ ചെരുവന്നിരുന്ന അത് ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈമ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതായത് കഴിയാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ട് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് രാവിലെ നേരങ്ങളിലാണ് സ്ഥലം വിസിറ്റ് ചെയ്യാന് അധികം ആൾക്കാര് പോകുന്നത് പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കില് റാണിപുരം റാണിപുരം എന്ന് പറയുമ്പോഴേക്ക് കാസർഗൊഡിൻ്റെ അറ്റ ഭാഗത്താണ് ഉള്ളത് ഏകദേശം ടു അവേഴ്സൊക്കെ ജേണി ഉണ്ട് കാസർഗോഡ് നിന്ന് റാണിപുരത്തേക്ക് പിന്നെ റാണിപുരത്തേക്ക് ആൾക്കാര് പോകുന്നത് രാവിലെ നേരങ്ങളിലാണ് രാവിലത്തെ വന്നാല് പോസിടി ഗോംപെ എന്ന് പറയുമ്പത്തേക്കും ഗവൺമൻറ്റ് അണ്ടറിലാണ് അതായത് ഓപ്പൺ പ്ലേസ് ആണ് വിസിറ്റ് ചെയ്യാൻ പക്ഷേ ഈ റാണിപുരം എന്നുപറയുമ്പത്തേക്കും ഗവൺമൻറ്റ് അണ്ടറാണ് അപ്പോൾ അതിലേക്ക് അവിടുത്തെ എൻട്രിക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ ടൈം റിസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് രാവിലെ നേരങ്ങളില് എട്ട് മണിക്ക് സംമ്തിങ് ആണ് ഓപ്പൺ ആകുന്നത് എട്ട് മണി ക്ലോസിങ് ടൈം ആയിട്ടുണ്ട് പോസാടി ഗുംപെ എന്നുവച്ചല് ഏത് നേരങ്ങളിലും ആൾക്കാര് അവിടെ പോകാണ്ട് എന്നാലും വിസിറ്റ് ചെയ്യുന്നത് നോർമലി മോർണിംഗ് ആണ് ആൾക്കാര് പിന്നെ റാണിപുരം എന്നുപറയുമ്പത്തേക്കും ആൾക്കാര് പോകുന്നത് കാസർഗൊഡില് ഏകദേശം നല്ലോണം ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലം ഇതാണ് പോസി റാണിപുരമാണ് ഹൈറ്റ് ഹിൽസ് ആയിട്ടുള്ളത് കാസർഗൊഡില് പിന്നെ ആൾക്കാര് വിസിറ്റ് ചെയ്യുന്നത് നല്ല രീതില് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വന്നാണ് ആൾക്കാര് റാണിപുരം വിസിറ്റ് ചെയ്യുന്നത് പിന്നെ കാസർഗോഡിലെ ഹിൽസ് പറയുമ്പഴേക്കും പോസാടി ഗുമ്പെയും പിന്നെ റാണിപുരം ഈ രണ്ട് പ്ലേസ് ആണുള്ളത് റാണിപുരത്തേക്ക് പോയാല് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കാര്യങ്ങളൊന്നും കൊണ്ടോ അതായത് അവിടെ ഡിസ്സ്പോസ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മൾ പോകുമ്പോൾ എന്താണോ കൊണ്ടുപോകുന്നത് ആ ഒര് പ്ലേസ് വിസിറ്റ് ചെയ്യാന് ആ കൈയിലുള്ള സാധനങ്ങളൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ അങ്ങനെ ഉണ്ടാകണം അത് അതിപ്പം വാട്ടർ ബോട്ടില് നമ്മൾ പോകുമ്പം കൊണ്ടുപോയിട്ടുണ്ടെങ്കില് ആ വാട്ടർ ബോട്ടില് തിരിച്ച് അങ്ങനെ കൊണ്ടുവരണം റാണിപുരം അതായത് ആ ഒരു ഡെസ്റ്റിനേഷനിൽ ഹാഫ് ആൻ അവറ് ജേണി ഉണ്ട് അപ്പം ഹാഫ് ആൻ അവറ് ജെർണിയില് ആ പോകുന്ന വഴിയില് ഒന്നും എറിയാൻ പാടില്ല ഇപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമ്മള് ആ രീതിയിലാണ് അത് അങ്ങനെ ആ ഒര് രീതിയിൽ വേണ്ടിയിട്ടാണ് അത് ഗവൺമെൻറ്റ് അണ്ടറില് കൊണ്ടുവന്നത് ആ ഒരു അണ്ടറില് കൊണ്ടുവന്നത്കൊണ്ട് റാണിപുരം നീറ്റ് ആൻഡ് ക്ലീൻ അതേപോലെ സെക്യൂർ ആയിട്ടുണ്ട് ഇതുവരെ പിന്നെ പറയുകയാണെങ്കില് അടുത്തതായിട്ട് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട് കാസർഗൊഡില് ബാക്ക് വാട്ടേഴ്സ് എന്നുപറയുമ്പത്തേക്ക് കാസർഗൊഡിൻ്റെ ബീച്ച് സൈഡില് ബീച്ച് പുഴകള് ബീച്ച് അല്ല പുഴകളുടെ സൈഡ് ആയിട്ടാണ് ബാക്ക് വാട്ടേഴ്സ് ഉള്ളത് ബാക്ക് വാട്ടേഴ്സ് ബീ പുഴകള് എന്നുപറയുമ്പ സെയിം ആണ് സോറി ബാക്ക് വാട്ടേഴ്സ് പുഴകള്ക്ക് സെയിം ആന്ന് ബാക്ക് വാട്ടേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്ന അതല്ലാണ്ട് ബീച്ച് ബീച്ചസ് കുറെ ഉണ്ട് കാസർഗൊഡില് വിസിറ്റ് ചെയ്യാനായിട്ട് ബീച്ച് ഹാർബറ് ഹാർബറില് പോയിക്കഴിഞ്ഞാല് കുറെ രീതിയിലുള്ള ഫിഷെസ് ഒക്കെ അവൈലബിൾ ആണ് നല്ല രീതിയിൽ മീന് കിട്ടും ഫ്രഷ് ഫ്രഷ് പിന്നെ കാസർഗൊഡില് സീ ഫുഡ് സീ ഫുഡും കിട്ടും കാസർഗൊഡില് വന്നാല് അടുത്തതായിട്ട് പറയാന് കാസർഗോഡ് സീ ഫുഡ് ബീച്ച് ബീച്ചസ് വിസിറ്റ് ചെയ്യാൻ പറ്റിയത് കാസർഗൊഡില് വൈകുന്നേരങ്ങളിലാണ് ആൾക്കാര് വരുന്നത് കാസർഗോഡ് ബീച്ചെസ്സില് ലൈറ്റ് ഹൗസ് ഉൾപ്പെടുന്നുണ്ട് ലൈറ്റ് ഹൗസ് എന്ന് വച്ചാല് കുറച്ചും കൂടി ഉയരം കൂടിയിട്ട് ബീച്ച് വ്യൂ കാണാൻപറ്റും ലൈറ്റ് ഹൗസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് കാസർഗോഡ് ഉള്ള ആൾക്കാരുടെ പെരുമാറ്റം എന്നുപറയുന്നത് കാസർഗൊഡില് പുതിയതായി വന്ന ആൾക്കാരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പെരുമാറും അതായത് അവർക്ക് വേണ്ട അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ അവർക്ക് ഒരുക്കി അതായത് റെഡി ആക്കിക്കൊടുക്കും പിന്നേ സൽക്കരിക്കും നല്ലതായിട്ട് തന്നെ അവരെ സൽക്കരിക്കുകയു ചെയ്യും പുറമെ നിന്ന് വന്ന ആളെ പുറമേക്കാരെന്ന് തോന്നിക്കാതെ അവരെ നല്ല രീതിയില് കെയർ കെയർ കൊടുക്കും അവർക്ക് വേണ്ടപോലെ അവര് കാസർഗോഡ്കാരൻ തന്നെയാണ് എന്നുള്ള ആ ഒരുപെരുമാറ്റവും അവർക്ക് നല്ല രീതിയിൽ കൊടുക്കും ചെയ്യും പിന്നെ കാസർഗൊഡില് അടുത്തതായി വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഒക്കെ ബാക്കിൽ ഫോർട്ട് ബാക്കിൽ ഫോർട്ട് എന്നുപറയുമ്പത്തെക്കും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ബേക്കൽ ഫോർട്ട് ഈ ബക്കൽ ഫോർട്ടിലേക്ക് പോയി കഴിഞ്ഞാല് ബീച്ച് സൈഡിലായിട്ടാണ് ബേക്കൽ ഫോർട്ട് വരുന്നത് പിന്നെ ബേക്കൽ ഫോർട്ടിനെ പറ്റിയിട്ട് പറയുവാണെങ്കില് ഒരു പണ്ട് കാലത്തുണ്ടായ ഒര് സ്ഥലമാണ് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ടിൽ പോയി കഴിഞ്ഞാൽ കുറെ കല്ലിൽ നിന്ന് നിർമ്മിച്ച കല്ലിൽനിന്ന് നിർമ്മിച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട് ബ്രിട്ടീഷ് കാലത്തുണ്ടായ കഥകളാണ് ഈ ബേക്കൽ ഫോർട്ടിൽ പോയിക്കഴിഞ്ഞാൽ അറിയപ്പെടുന്നത് ബേക്കൽ ഫോർട്ട് എന്നുപറയാൻ ബേക്കൽ ഫൊർട്ടിൽ നിന്ന് കാസർഗോഡ് നിന്ന് ബേക്കൽ ഫോർട്ടിലേക്കൊരു ഒര് അര മണിക്കൂറ് ഒര് അര മണിക്കൂറ് ട്രാവല് ചെയ്യണം ഈ ബേക്കൽ ഫോർട്ടില് പോയിക്കഴിഞ്ഞാല് അവിടെത്തന്നെ അതിന് ഒരു പ്ലേസ് ഉണ്ട് അതായത് ബീച്ചയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയത് പിന്നെ കാസർഗൊഡില് ബേക്കൽ ഫോർട്ട് ബേക്കൽ ഫോർട്ടിനെപ്പറ്റി ഹിസ്റ്റോറിക്കായിട്ടാണ് സ്റ്റോറി ഉള്ളത് അറിയപ്പെടുന്നത് നല്ല രീതിയില് വ്യൂ നല്ലരീതിയിലുള്ള എന്താ പറയുക വ്യൂ കിട്ടുന്നുണ്ട് കാസർഗോഡ് ബേക്കൽ ഫോർട്ട് പോയിക്കഴിഞാല് അത് പോലെ കുറെ സ്റ്റോറി ഒക്കെ അറിയാൻ പറ്റും കാസർഗോഡ് ബേക്കൽ ഫോർട്ട് പോയാല് നല്ല രീതിയില് ശാന്തത ഉള്ളൊരു സ്ഥലം ആണ് ബേക്കൽ ഫോർട്ട് പിന്നെ ബേക്കൽ ഫോർട്ടിൽ തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റിയത് പിന്നൊരു ബീച്ച് അവിടെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അവിടെ എപ്പോൾ പോയാലും നല്ല രീതിയില് ആൾക്കാര് വിസിറ്റ് ചെയുന്നുണ്ട് വൈകുന്നേരങ്ങളില് പിന്നെ അതല്ലാതെ കാസർഗോഡ് കാസർഗൊഡില്കിട്ടാൻ ഫുഡ് ഫുഡിനെ പറ്റിട്ട് കാസർഗൊഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കുറെ രീതിയിൽ ഫുഡുകൾ ഉണ്ട് കാസർഗോഡ് ഉള്ള തന്നെ അപ്പോൾ ഏതൊരാൾക്കും ഏത് രീതികളിലുള്ള ഫുഡും കാസർഗൊഡില് കിട്ടാൻ പറ്റും കാസർഗൊഡില് പ്രത്യേകത ആയിട്ട് ഫുഡ് ഉണ്ട് അപ്പം അതും കിട്ടുന്നുണ്ട് കാസർഗോഡില് നല്ല രീതില് ഫുഡും കിട്ടും കാസർഗൊഡില് പല രീതിലായിട്ടുള്ള ഫുഡ് കിട്ടും അതായത് പുറമായിട്ടുള്ള ആൾക്കാര് വന്നാല് അവരുടെ രീതിയിലുള്ള ഫുഡ് അവർക്ക് കിട്ടും അതേപോലെ കാസർഗൊഡില് പ്രത്യേകത ഫുഡ് വേണമെന്ന് ഉണ്ടെങ്കിലും അതും കിട്ടും

ഫുഡിലൊക്കെ ഒരു രീതിലും കുറവ് വരുത്തില്ല കാസർഗോഡ് പ്ലേസ് എന്നുപറയുമ്പഴേക്കും പിന്നെ കാസർഗൊഡില് നൈറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കുറവാണ് എന്നുചോദിച്ചാല് കാസർഗൊഡില് അധികം നൈറ്റൊന്നും അത്ര ആക്റ്റീവ് അല്ല ആൾക്കാര് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും കുറവാണ് എല്ലാം ഡേ ടൈമിലാണ് വിസിറ്റ് ചെയ്യാൻ പറ്റിയത് കാസർഗോഡില് കാസർഗൊഡിലാണ് എനിക്ക് ഒര് ഫേവറേറ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യാനും എന്നു വെച്ചാൽ എവിടെ അങ്ങനെ സീസണും കാര്യങ്ങളും ഒന്നും ഇല്ല ആർക്കും എപ്പഴും വന്നിട്ട് പോകാൻ പറ്റും